ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പള്ളി ഫൊറോന ആക്കി ഈയിടെ പ്രഖ്യാപിച്ചതായിരുന്നു അതിനുശേഷം ആ പള്ളിയിലേക്ക് കൂടുതൽ ആളുകൾ വരികയും അവിടെ ആ പ്രദേശത്തിലെ തന്നെ ഒരുപാട് കടകൾ ഉണ്ടാകുകയും ആ കടകളില് ചെറിയ ചെറിയ കടകൾ വരികയും അവരുടെ തന്നെ വരുമാനമുയരുകയും ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട് മീൻസ് അവിടെ ഒരു ആറിൻ്റെ അക്കരെ ആയിരുന്നു ആ പള്ളി സോ ആറിന് അവിടെ ഒരു പാലം വന്നു കൂടുതൽ ആൾക്കാർക്ക് എത്തിപ്പെടാൻ വേണ്ടി പിന്നെ കൂടുതൽ ബസ് സർവീസ് വന്നു അപ്പോൾ റോഡുകൾ നന്നാക്കി അതിൻ്റെ ചുറ്റും ഒരുപാട് കടകൾ വന്നു സൂപ്പർ മാർക്കറ്റുകൾ മൂന്നെണ്ണം വന്നു സോ ആ പള്ളി ഫൊറോന ആക്കിയതിനു ശേഷം ഞങ്ങൾക്ക് വഴിയാണെങ്കിലും ഞങ്ങൾക്ക് റോഡാണെങ്കിലും അതിനുള്ള ഒരുപാട് ഫെസിലിറ്റിസ് ലഭിച്ചു മാത്രമല്ല അവിടത്തെ വരുമാന നിലയും ഒരുപാട് ഉയർത്താൻ അത് ഫോറോന ആക്കിയത് സഹായിച്ചിട്ടുണ്ട്